ഇപ്പം കോഴിക്കോട് ജില്ലയിലെ പ്രധാന സാംസ്ക്കാരിക സാമൂഹിക പാരമ്പര്യങ്ങൾ എന്തൊക്കെയാന്നുവെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു ജില്ലകളെപ്പോലെത്തന്നെയാണ് ഇപ്പം ഭാഷയാണെങ്കിലും അതാണെങ്കിലും ആചാരങ്ങളായാലും സമ്പ്രദായങ്ങൾ അത് മതമെന്നു വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള മതങ്ങളാണ് നമ്മ ശെരിക്കും മതത്തെക്കുറിച്ച് പറയാൻ പറ്റില്ല പറയാൻ പാടില്ല എന്നാലും ഞാൻ പറയാം ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം മുസൽമാൻന്നു പറഞ്ഞിട്ടുള്ള മതങ്ങളാണ് നമുക്കുള്ളത് അതിപ്പോൾ കേരളത്തില് മുഴുവനായിട്ട് അങ്ങനെത്തന്നെയാണ് കേരളത്തിന് പുറമെ എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല പറഞ്ഞ ഓരോരുത്തർക്ക് ഇങ്ങനെ സിഖുകാര് അങ്ങനെ ഒരുപാട് ഒരുപാടുപേരുണ്ടാവും അതുകൊണ്ട് തന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കില് എങ്ങനെയാണ് ആളുകൾ ഇങ്ങനെ മതപരമായ ആചാരങ്ങളിൽ ഏർപ്പെടുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇനി ഇപ്പോൾ ഹിന്ദുക്കളാണെങ്കിൽ ഹിന്ദുക്കള് ദൈവവിശ്വാസ് കൂടുതലായിട്ട് ദൈവവിശ്വാസം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലീംസിനുമൊക്കെയുണ്ട് എന്നാലും ഹിന്ദുക്കള് കൂടുതലായിട്ടും ക്ഷേത്രങ്ങളിലും കാര്യങ്ങളിലുമൊക്കയാണ് പൂവാ അതുപോലിപ്പോൾ ക്രിസ്ത്യാനികളുടെ കാര്യം പറയുവാണെങ്കില് കൂടുതല് പള്ളി അതായത് അവരുടെ ക്രിസ്ത്യാനി പള്ളികളുണ്ട് അവർക്കായിട്ടുള്ളത് പിന്നെന്നുവെച്ചിട്ടുണ്ടെങ്കില് മുസ്ലീംസിനുവെച്ചാൽ മുസ്ലീംസിൻ്റെ പള്ളികള് കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ മുസ്ലീംസിൻ്റെന്നു വെച്ചിട്ടുണ്ടെങ്കില് പെണ്ണുങ്ങൾ അങ്ങനെ പള്ളിയിലൊന്നും കയറില്ല പെണ്ണുങ്ങൾക്ക് പൊതുവെ അല്ലാണ്ട് നിസ്ക്കരിക്കാനുള്ള സ്ഥലങ്ങള് സൗകര്യങ്ങളൊക്കെയാണ് ഇതാക്കികൊടുക്കുക ആണുങ്ങള് മാത്രാമാണ് പള്ളീലൊക്കെ കയറുക അവർക്ക് മൈനായിട്ട് വെള്ളിയാഴ്ചാന്നു പറഞ്ഞിട്ടുണ്ടെങ്കില് അവര് എല്ലാവരും കൂടെ നിസ്ക്കരിക്കാനായിട്ട് പള്ളീലും കാര്യങ്ങളിലുമൊക്കെ പോകും അങ്ങനൊക്കെയാണ് ഇവിടുത്തെ സംസ്ക്കാരവും പാരമ്പര്യവും പറയാനാണെങ്കില് ഇങ്ങനത്ത് ഇങ്ങനെയൊക്കെത്തന്നെയാണ് അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ വിദേശികള് വന്നിട്ടുണ്ടെങ്കില് പാരമ്പര്യ സംസ്ക്കാരവുമായി എങ്ങനെ വിവരിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മളിപ്പോൾ ഈ പറഞ്ഞരീതിയിൽത്തന്നെയാണ് നമ്മള് അവരോടും പറഞ്ഞുകൊടുക്കുക